തീർച്ചയായും ഞാൻ ഡാൻസ് റീലുകൾ ഷോട്ട്സ് എന്നിവ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അനേകം താരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട നർത്തകരാണ് കാരണം ശരിക്കും അവർ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്നു ഇത്രയും ആസ്വദിച്ച് കളിക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നർത്തകരായിട്ട് ഞാൻ പറയുന്നത് യൂട്യൂബേർസിലുള്ള രാജേഷ് ചിന്നു എന്ന കപ്പിൾസും അതുപോലെ പ്രവീൺ പ്രണവെന്ന സഹോദരങ്ങളുമാണ് ഇവരുടെ നൃത്തം എനിക്ക് വളരെ ഇഷ്ടമാണ് ശരിക്കും നൃത്തത്തെ ഞാൻ ഒരു പടി കൂടുതൽ സ്നേഹിക്കുന്നത് ഇവർ കളിക്കുന്നത് കാണുമ്പോഴാണ് സകലതും മറന്ന് നിന്ന് മറന്ന് കൊണ്ട് തങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് അതായത് തങ്ങളുടെ നൃത്തം ചെയ്യണം എന്ന വലിയ ആഗ്രഹത്തിന് വേണ്ടി തന്നെ അവർ ഒരു പാട് ത്യാഗങ്ങൾ ഇതിൻ്റെ പിന്നിൽ എടുക്കുന്നുണ്ടെന്ന് അവർ തന്നെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യാറുള്ള ഒരു കാര്യം കൂടിയാണ് ശരിക്കും ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും വളരെ വളരെ കുറവായിരിക്കും പൈസയ്ക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തങ്ങളുടെ അഭിരുചിക്ക് മുന്നിലിട്ടു ഓടുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ഞാൻ ഇതിലൂടെ കണ്ടിട്ടുള്ളത് പ്രണവ് പ്രവീണിൻ്റെ കാര്യം പറഞ്ഞ് അവര് അവരുടെ ജോലി പോലും മാറ്റിവച്ച് തങ്ങളുടെ പാഷനായ ഡാൻസിൻ്റെ പുറകെ ജീവിക്കുന്ന രണ്ടു ചെറുപ്പക്കാർ തീർച്ചയായിട്ടും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ അവർ അവർ എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ വൃന്ദ അർജുനെന്ന മറ്റൊരു യൂട്യൂബ് ചാനലിലെ പെൺകുട്ടി ആ പെൺകുട്ടിയും തൻ്റെ ജോലി ഉപേക്ഷിച്ച് ഇന്നൊരു ഡാൻസ് സ്റ്റുഡിയോ ആർട്ട് ഇട്ടേക്കുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം വലിയ കോടീശ്വരി ആവുകയോ വലിയ പണം സമ്പാദിക്കുവോ എന്നൊന്നും അല്ലായിരുന്നു മറിച്ച് നല്ല ഒരു നർത്തകി ആവുക നൃത്തം അഭ്യസിച്ചതിനു ശേഷം അത് മറ്റുള്ളവരിലേക്ക് പങ്കെത്തുക എന്നുള്ള ഒരു മനോഭാവമായിരുന്നു ഇന്നത്തെ തലമുറയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക അതിലുപരി എന്തൊക്കെ ബാക്കി ഉള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം എന്നവർ മറന്നു പോകുന്നു പക്ഷേ ഞാൻ ഈ മേൽപറഞ്ഞ മേലിൽ പറഞ്ഞ വ്യക്തികളെല്ലാം അവരുടെ സ്വപ്നമായ നൃത്തത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏറെക്കുറെയും ഇവരുടെയൊക്കെ സ്വപ്നങ്ങളെ സ്വന്തമായിട്ട് ഒരു ഡാൻസ് സ്റ്റുഡിയോ തന്നെ ആണ് ഈയൊരു കാലഘട്ടത്തിൽ ഇങ്ങനുള്ളവരെ കാണാൻ സാധിക്കുക എന്നുള്ളത് വലിയ കുറവായിട്ടുള്ള ഒരു കാര്യമാണ് റീൽസും ഷോട്ട്സും കാണുമ്പോൾ എനിക്ക് തന്നെ പ്രചോദനം തോന്നാറുണ്ട് ഡാൻസ് കളിക്കാനും അതുപോലെ റീൽസ് എടുക്കാനും ഒക്കെ ഞാനും റീൽസ് എടുക്കുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് എൻ്റെ നൃത്തത്തിൻ്റെ എനിക്ക് ഒരു കാര്യത്തിലും പൂർണമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനും എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എൻ്റെ റീലുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ റീലുകൾ പ്രധാനപ്പെട്ടതും ഡാൻസാണ് നൃത്തമാണ് നൃത്തത്തിൻ്റെ വീഡിയോകളാണ് ഞാൻ കൂടുതലും പോസ്റ്റ് ചെയ്യാറുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യാനുള്ളത് ഒരു പ്രോത്സാഹനം തന്നെ എനിക്ക് ലഭിക്കുന്നത് മീഡിയയിലെ സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട നർത്തകരിൽ നിന്ന് തന്നെയാണ്